മലയാളം സംസാരിക്കാത്ത ആളുകളുമായി ആശയവിനിമയം നടത്താൻ മലയാളികൾ വളർന്നുകഴിഞ്ഞിരിക്കുന്നു നിലവിലുള്ള സാങ്കേതിക വിദ്യകൾ അടക്കം ഇന്ന് ഉപയോഗിച്ച് വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം മലയാളം സംസാരിക്കാത്ത ആളുമായിട്ട് എനിക്ക് എനിക്ക് ഞാനൊരു മലയാളിയാണ് ഞാൻ എങ്ങനെയാണ് അവരുടെ ഭാഷ ഉപയോഗിക്കുന്നത് ഇപ്പം നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ ഭാഷയെ ഇപ്പം ഇംഗ്ലീഷ് തന്നെ ആണെങ്കിൽ നമ്മൾ പറയുന്ന മലയാളം ഇംഗ്ലീഷിൽ പിന്നെ ഗൂഗിളിൽ വരുകയും അത് നമുക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നുകഴിഞ്ഞിരിക്കുന്നു അതെല്ലാം നമുക്ക് അറിയുന്ന രീതികളിലൊക്കെ നമുക്ക് മറ്റുള്ളവരെ ഭാഷ മനസ്സിലാക്കാൻ സഹായിക്കാം ആംഗ്യഭാഷകളിലൂടെ ആണെങ്കിലും മറ്റുള്ള സ് ഉപകരണങ്ങൾ സാധനങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചും നമുക്ക് മലയാള മലയാളം അറിയാത്ത ആളുകളെ നമുക്ക് മനസ്സിലാക്കിക്കാൻ പറ്റുന്നു അതിലുപരി നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇന്ന് ഭാഷ കൈകാര്യം ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്